പണ്ടുള്ള കാലഘട്ടത്തിൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രിക പത്രം മംഗളം ടി വി ജനയുക്തം പത്രം അങ്ങനെ പറഞ്ഞിട്ട് കുറേതന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കുറേ പത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റിയ കുറേ ഇതുണ്ടായിരുന്നു ഇപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ടി വി ഫോൺ ഒക്കെയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും അതേപോല മാധ്യമങ്ങൾ നല്ല രീതിയ്ക്ക് നമ്മളെ വയനാട്ടിൽ ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണണമെങ്കിൽ അതിൻ്റെതായ ഓഫീസ് അല്ലെങ്കിൽ ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം നമുക്ക് അതിലൂടെ നമുക്ക് വാർത്തകളൊക്കെ അറിയാം അല്ലെങ്കിൽ വാർത്തൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മുക്ക് വളരെ നമ്മളെ ഹെല്പ് ചെയ്യും